എനിക്ക് ഒരു പി എം കെ വി വൈ കോഴ്സിനു ചേരണം എന്നു ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അതൊന്നു പറഞ്ഞുതരാമോ എവിടാ ചേരേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കോഴ്സ് സെൻ്റർ എവിടെയാണ് എന്നൊക്കെ ഒന്നു പറഞ്ഞു തരാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും പിന്നെ എനിക്ക് ബി കോം വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ചതിൻ്റെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വരുവാ കൊടുപ്പുന്ന എന്ന ഒരു സ്ഥലത്താണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കൊടുപ്പുന്ന എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ സെൻ്റർ ഉണ്ടോ ടൈം ക്ലാസ്സിൻ്റെ സമയമൊക്കെ ഒന്നു പറയാമായിരുന്നെങ്കിൽ ഓൺലൈൻ ക്ലാസ്സാണോ അതോ പിന്നെ റെഗുലർ ക്ലാസ്സാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നു പറയുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറ്റർഡേ സൺ സാറ്റർഡേ ഫുൾ ഡേ ക്ലാസ്സ് ആണോ അതോ സൺഡേ സാറ്റർ സൺഡേ പിന്നെ ഒഴിവാണോ അതേകുറിച്ചൊക്കെ ഒന്ന്